ആ ഹലോ സാർ ആ ഞങ്ങൾ ഇത് കമ്പനിയല്ലേ ഒപ്പോൻ്റെ ആ സാറേ ഞാൻ ഈ ഫോണ് മേടിച്ചിട്ട് അധികം ആയിട്ടില്ല ആ ഇത് ഓപ്പോ എ ഫിഫ്റ്റി ആ ഇതിനകത്ത് കാര്യങ്ങൾ ഒരാഴ്ച്ചകൊണ്ട് തന്നെ ഭയങ്കര ഹാങ്ങാവുന്നുണ്ട് പിന്നെ ബാറ്ററി ഒട്ടും നിൽക്കുന്നില്ല പിന്നെ ഫാസ്റ്റ് ചാർജറെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അതൊക്കെ ഭയങ്കര നെഗറ്റീവാണോ അപ്പോൾ ഒരു ഇതില്ല കാരണം എന്താണെന്ന് വച്ചാൽ ചാർജെല്ലാം വേഗം തീരുകയാണ് എന്താ പറയുക ഒന്നിനും കൊള്ളുന്നില്ല പിന്നേ ചില സമയത്ത് നമ്മൾ ഞാനൊരു പബ്ജി പ്ലേയറാണ് അപ്പം പബ്ജിയൊക്കെ കളിക്കാൻ നേരത്ത് ചില സമയം സ്ക്രീൻ ബ്ലാക്കായി പോവുകയാണ് ഒട്ടും എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫോണ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് ഈ ഫോണോ ഈ ഫോണൊന്നില്ലെങ്കിൽ മാറ്റിത്തരിക അല്ലെങ്കിൽ ഫോണിൻ്റെ പൈസ തരേണ്ടി വരും അല്ല സാറേ നമ്മൾ കംപ്ലയിൻ്റ് പറയണമല്ലോ നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയേണ്ടതല്ലേ സാറ് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ ഷോപ്പിലേക്ക് വന്നേക്കാം സാറിൻ്റെ സാറിൻ്റെ കമ്പനിയിലേക്കായാലും വന്നേക്കാം ഞാൻ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ ആ ആ റെഡിയാക്കിത്തരാമല്ലേ ആ ഓക്കെ ഓക്കെ ആ ഞാൻ വന്നേക്കാം